വരയ്ക്കുമ്പോൾ ആദ്യം ഉപയോഗിക്കുന്നത് പെൻസിൽ ആണ് അത് ഉപയോഗിച്ചു അതിൻ്റെ സ്കെച്ച് എടുത്തതിനു ശേഷം ആക്രിലിക്ക് പെയിൻ്റുകൾ ഓൺലൈൻ വഴി വാങ്ങാറുണ്ട് അത് ഇന്ന ബ്രാൻഡ് എന്നൊന്നുമില്ല വില കുറവ് ഓഫറിൽ കിട്ടുന്ന ബ്രാൻഡ് ഏതാണോ അത് ആ സമയത്ത് നല്ല കളേഴ്സ് ഉണ്ടെങ്കിൽ അത് ലഭ്യമാകുന്നതിന് അനുസരിച്ചു ആവശ്യം ഏതാണോ എന്നിട്ട് അപ്പോഴത്തെ ആവശ്യത്തിന് അനുസരിച്ചു ഓൺലൈനിൽ നോക്കി പല ഓൺലൈൻ മീഡിയകളെല്ലാം നോക്കി പുറത്ത് ചെറുകടകളിലും നോക്കി എവിടെയാണോ വില കുറവായിട്ട് കിട്ടുന്നത് നല്ല ക്വാളിറ്റിയുള്ള നല്ല മേന്മയുള്ള ഗുണനിലവാരമുള്ള പെയിൻറിങ് പെയിൻ്റിങ് വരയ്ക്കാനുള്ള എന്താണോ കിട്ടുന്നത് അത് വാങ്ങാറാാണ് പതിവ്